വരക്കുമ്പോൾ നമ്മൾ പലതരം വരകളുണ്ടല്ലോ പെൻസിൽ ഡ്രോയിങ്ങിലാകുമ്പോൾ പലതരം പെൻസിലുകളുണ്ട് മ് അതിൻ്റെ ഓരോ പോയിൻറുകളും ബ്ലാക്ക് പോയിൻറുകളും നമ്മൾക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പം ഓരോന്നിനും ഓരോ റൈറ്റും കാര്യങ്ങളും ആണ് ഏ അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാൻ പിന്നെന്താണ് പെയിൻറിങ്ങ് എന്ന് വരുമ്പോൾ അതിൻ്റെ ബ്രഷുകൾ പലതരം ബ്രഷുകൾ ഡാർക്ക് വിക്കിൻ്റെ ബ്രഷുകളുണ്ട് ബ്രൗൺ ഓയിലിൻ്റെ ബ്രഷുകളുണ്ട് അപ്പം പെൻസിലിൻ്റെ അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ പെയിൻറിൻ്റെ പെയിൻറ് ക്വാളിറ്റി ബോട്ടിൽ പെയിൻറ്റുകൾ ഉണ്ട് പിന്നെ മിക്സഡ് പെയിൻന്റ്റുകൾ നമ്മൾ ആക്കാൻ പറ്റും പലതരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചിലതൊക്കെ എന്താണ് പിന്നെ നമ്മൾ കാലിഗ്രഫീലേക്കൊക്കെ വരുകയാണെങ്കിൽ പലതരം വെറൈറ്റി പെൻസില് അതിൻ്റെ ഒരു സ്ട്രക്ച്ചറ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കണം പിന്നെ പേപ്പറ് കാര്യങ്ങൾക്കും ക്യാൻവാസുകൾക്കും റൈറ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ മൊത്തത്തിൽ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല കാര്യം അതിന് അവൻ്റെ കഴിവിനെ ആണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റിന് വളരെ പ്രധാനമുണ്ട് ഏ കാരണം നമ്മൾ വരച്ചൊരു ആളുടെ അയാളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തിന് നമുക്ക് വില ഇടാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ്നും വില ഇടാൻ കഴിയില്ല കാരണം ഈ സന്തോഷത്തിന് ഉറവിടം ഇവിടുന്നാണ് ഇവൻ്റെ കൈകളിൽ നിന്നാണ് അപ്പം ഈ പെൻസിലിൻറും ഈ പേപ്പറിൻ്റെ സംഭവം വില കൂടുതലാണെങ്കിൽ പോലും മറ്റുള്ളവർ കിട്ടുന്ന സന്തോഷത്തിന് വില ഇടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കഴിവിനും വില ഇടാൻ കഴിയുന്നില്ല എന്നല്ലേ അർത്ഥം അങ്ങനെ തന്നെയാ അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം സംഭവം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് എല്ലാത്തിനും ജി എസ് റ്റി കാര്യങ്ങളതൊക്കെ പിന്നെ അപ്പോൾ അതിനനുസരിച്ച് വില കൂടുതലാവും ഓരോ മുന്തിയ ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് വില കൂടുതലാണ് കാരണം അത്രത്തോളം വിട്ടഴിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതത്രത്തോളം ചെലവഴിക്കപ്പെടുന്ന ഈ ലോകത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാതെ ഇത്ര പോന്ന പെൻസിൽ തയോ അമ്പത് രൂപ ഒരു പെൻസില്ന് അല്ലെങ്കിൽ നൂറ് രൂപ ഒരു പെൻസിലിന് ഒരു നൂറ്റമ്പത് പറയുന്നത് അവർക്കതിൻ്റെ മൂല്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് മൂല്യം മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഈ ഒരു ഒരു മുന്നൂറ് രൂപ കൊടുത്താലും അയാൾക്ക് വിഷമം തോന്നില്ല പക്ഷെ മറിച്ചൊരു ഈ ആർട്ടിസ്റ്റിൻ്റെ വില അറിയാത്ത അല്ലെങ്കിൽ ഒരു ഇവരവിടെ വില അറിയാത്ത ഒരു വ്യക്തിത്വം വന്നിട്ട് ഈ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഒരു കുട്ടിക്ക് വേണ്ടി വാങ്ങി കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ

അതതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പൊട്ട് പെൻസില് അല്ലങ്കിൽ ഇത്ര ബ്രഷിനൊക്കെ ലോക്കൽ ബ്രഷുകളും കിട്ടും ഏ അത് ഉപോഗിച്ച് അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് അദ്യം തന്നെ നമ്മൾ ബ്രാൻറ്റിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല അപ്പം ആർട്ടിസ്റ്റത്തിന് നമ്മൾ വില ഇടാൻ കഴിയില്ല ഏ വിലയിടൻ കഴിയാത്ത മൂല്യം അമൂല്യമായതാണ് അല്ലേ മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്തതാണെന്ത് ഈ ആർട്ടിസം എന്നത് അല്ലെങ്കിൽ വര ആ ഒരു കല എന്നുള്ളത് അതൊരിക്കലും മൂല്യം നിർണ്ണയിക്കാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂല്യം നിർണയിക്കാൻ പറ്റാത്ത ഒന്നാണ് ആർട്ടിസം ആർട്ടിസ്റ്റ് എന്നുള്ളത്